ഞാന് കഴിഞ്ഞ ഒരു വർഷത്തിനിടയില് അവിസ്മരണീയമായ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് പറയുമ്പം ഈ കഴിഞ്ഞ ഗണേശ ഉത്സവത്തിന് നമ്മുടെ സൗണ്ട് സൗണ്ടിന്റെ വർക്ക് എടുക്കുന്ന ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു അപ്പം ആള് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പിന്നാലെ കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സത്യം പറഞ്ഞാ നല്ലൊരു അനുഭവം ആയിരുന്നു കാരണം ആ സമയത്ത് നല്ല വർക്കും നല്ല തെരക്കുള്ള വർക്ക് ഉള്ള സാമ്യം ആയിരുന്നു പെട്ടെന്ന് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയിലുള്ള ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷം റുപ്പിയടെ സൗണ്ട് ബോക്സ് കാര്യങ്ങള് അതിൻ്റെ സെറ്റപ്പ് മൈക്ക് അങ്ങനത്തെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാരുന്നു നമ്മുടെ കൈയ്യിൽ ഉണ്ടാരുന്നത് അപ്പോൾ അതായത് അവര് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലന്ന് പറയുമ്പോൾ നമുക്ക് സാധനങ്ങള് കേടു വന്ന് പോകാനുള്ള രീതിയ്ക്കുള്ള സംഭവങ്ങള് അപ്പോൾ ആള് പറഞ്ഞിട്ടുണ്ടാരുന്നു മഴ വന്ന് കഴിഞ്ഞാൽ കൃത്യമായി ഇത് മൂടി വെയ്ക്കണം അപ്പോൾ ഇത് നനഞ്ഞ് കഴിഞ്ഞാൽ പണി ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാരുന്നു നമ്മള് സാധനം ബുക്ക്സ് എടുക്കുമ്പോൾ തന്നെ അപ്പോൾ നമ്മള് സാധനം എടുത്തു വർക്ക് ചെയ്യാൻ തുടങ്ങി ഗണേശോത്സവത്തിന്റെ ഭാഗ ഭാഗമായിട്ടിങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിയ്ക്കാണ് പെട്ടെന്ന് വളരെ പെട്ടെന്നാരുന്നു നല്ല രീതിയ്ക്കൊരു മഴ വന്നു അപ്പോൾ നമ്മളത് എന്താ പറയുക സത്യം പറഞ്ഞാൽ നമ്മള് എല്ലാ സാധനവും ടർപ്പായും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടാരുന്നു പെട്ടെന്ന് വലിച്ചൊക്കെ ഇട്ടു പിന്നേ അതിന് എല്ലാം കൃത്യമായിട്ട് മൂടി അത് ഒക്കെ വെച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പഴാണ് മനസിലായത് അതിനുള്ളിലൊരു ഹോൾ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ പിന്നെ ശ്രദ്ധിച്ചപ്പഴാണ് അതിനുള്ളിലേക്ക് വെള്ളം കയറുന്ന രീതി ഇരിയ്ക്കന്ന ഹോള് കണ്ടത് പെട്ടെന്ന് തന്നെ അത് പോയി സംഭവം നല്ല മഴയെ ക്കൊണ്ട് ആ സാധനമൊക്കെ ഫുൾ ആയിട്ട് റെഡി ആക്കി എന്തോ ഭാഗ്യത്തിന് അല്ലെങ്കിൽ നമ്മള് കൃത്യമായിട്ട് അത് ചെയ്തത കാരണം കൊണ്ട് ആ ബോക്സും കാര്യങ്ങളൊന്നും കേടു വരാണ്ട് നല്ല രീതിയ്ക്ക് ഉപയോഗിയ്ക്കാൻ പറ്റുന്നുണ്ട്